കോട്ടയം ജില്ല മതപരമായും സാമൂഹ്യപരം സാംസ്കാരികപരമായും വൻപുരോഗതിയുടെ വക്കിലാണ് ഒട്ടനവധി സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട് ഒട്ട് പള്ളികളും വിശ്വാസം വിശ്വാസികൾക്കായിട്ട് ഒത്തിരി പള്ളികളും കാര്യങ്ങളും കാണാനായിട്ടുണ്ട് കുറെ എണ്ണം ഞാൻ പറയാം കുറവിലങ്ങാട് പള്ളി കുറവിലങ്ങാട് മർത്താമറിയം പള്ളി എന്ന് പറയും അത് മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് സെൻറ്റ് മേരീസ് പള്ളി അവിടെ ജനു ജനുവരി മൂന്നാം മൂന്ന് നോയമ്പ് എന്ന് പറയും അതിരമ്പുഴപെരുനാളക്കെ കഴിഞ്ഞതിന് ശേഷമാണവിടെ മൂന്ന് നോയമ്പ് പെരുനാളുവൊക്കെ മൂന്ന് ദിവസത്തെ നോയമ്പെടുത്ത് ശുദ്ധവൃത്തിയോടുകൂടിയാണ് അവിടെ പെരുന്നാൾ നടക്കുന്നത് അവിടെ പ്രധാനമായും യോഹന്നാൻ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കപ്പൽ ഉണ്ട് ആ കപ്പൽ കപ്പൽ പ്രദിക്ഷണമാണ് അത് കളപ്പോരുള്ള ആൾക്കാർ വന്നെടുത്തൽ മാത്രമേ ആ കപ്പൽ പള്ളിക്കകത്തുന്ന് അനങ്ങുവെന്നുള്ള വിശ്വാസമാണ് ആ കപ്പൽ പത്ത് നൂറ് ആൾക്കാർ തോളിലേറ്റി കടലിൽ കപ്പൽ എങ്ങനെ നീന്തിയോ അതുപോലെയാണ് ആ പള്ളിക്ക് ചുറ്റും അത് പ്രദിക്ഷണമായിട്ട് കൊണ്ട് നടന്ന് കുരിശുംതൊട്ടി ചെന്ന് അവിടുന്നത് തിരിച്ച് പള്ളിക്കകത്തോട്ട് കയറുന്നതിന് മുൻപ് ആ കപ്പലിനകത്ത്ന്ന് യോഹന്നാൻ പ്രവാചകനെ പുറത്തോട്ടെടുക്കും അതായത് എടുത്ത് ക അതിങ്ങനെ യോഹന്നാൻ പ്രവാചകനെ വിശ്വാസത്തിൽ മത്സ്യം പുറത്തേക്ക് എടുത്തു ഛർദ്ദിച്ച് കളഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മക്കായിട്ടാണ് അതു കഴിയുമ്പം പിന്നെ കടൽ ശാന്തമാകുന്നു പിന്നെ കപ്പൽ ഒരു നല്ല സമാധാനപരമായിട്ട് കയറിപോകുന്നു ആ ആ പ്രദിക്ഷണം നടക്കുന്ന സമയത്ത് ആ ആ പള്ളീടെ ചുറ്റും ഒരു കൃഷ്ണപ്പരുന്ത് മൂന്ന് പ്രാവശ്യം ഈ പ്രദിക്ഷണം പള്ളിക്കകത്ത് കയറുന്ന സെബാസ്ത്യാനോസ് പുണ്യാളൻറേം മാതാവിൻ്റെയും ഒരു രൂപം ഇറങ്ങി വണങ്ങി പള്ളിക്കകത്ത് കയറുന്ന സമയതുള്ളൊരു കൃഷ്ണപ്പരുന്ത് ആ പള്ളി കുരിശും തൊട്ടിക്ക് നടുക്ക് കൂടെ വട്ടമിട്ട് പറന്ന് നടക്കും പ്രദിക്ഷണം പള്ളിക്കകത്ത് കയറി കഴിയുമ്പഴ്ത്തേന് കൃഷ്ണപ്പരുന്ത് പോവുകയും ചെയ്യുന്നു ഒരു വല്ലാത്ത കാഴ്ചയാണ് അവിടെ പള്ളിയിൽ അച്ഛൻ വിളിച്ച് പറയും അതാ അവിടെ ഒരു കൃഷ്ണപ്പരുന്ത് പറക്കുന്നു നമുക്ക് അത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് മാന്നാനം ശ്രീ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ്റെ മക്കളിത്തവർക്ക് മക്കളുണ്ടാകാനായിട്ട് കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ്റെ അടുത്ത് പോയി പ്രാർഥിച്ച് കഴിഞ്ഞാലങ്ങനെ ഉണ്ടാകും ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ കാലിന് തളർച്ച വന്ന കുഞ്ഞുങ്ങൾക്ക് അവർക്ക് അവിടെ വന്ന് കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ്റെ ഖബറിടത്തിൽ വന്ന് തൊട്ട് പ്രാർഥിച്ച് നീന്തിക്കഴിയുമ്പോൾ അവരുടെ കാൽ സുഖപ്പെടും ഇഷ്ടമ്പോലെ അനുഭവസാക്ഷ്യങ്ങളും എല്ലാം ഉള്ളതുപോലെ ഭരണങ്ങാനം പള്ളി അതുപോലെ തന്നെ ഭരണങ്ങാനത്ത് അൽഫോൻസാമ്മേടെ അടുത്ത് അല്ലെങ്കിൽ അൽഫോൻസാമ്മക്ക് കന്യാസ്ത്രീ അമ്മയുടെ ആഗ്രഹം ആയിരുന്നു അപ്പനും അമ്മേം എല്ലാവരും കൂടെ നിർബന്ധിച്ച് കല്യാണം കഴിക്കാൻ താൽപ്പര്യം പറഞ്ഞപ്പഴ്ത്തേന് ഇഷ്ട്ടം ഇല്ലാഞ്ഞിട്ട് അമ്മയുടെ ചേടത്തീടെ വീട്ടിപ്പോയിട്ട് അവർ ഉമി കത്തിക്കുന്ന ഉമി കുഴിക്കകത്ത് ചാടി കാലെല്ലാം പൊള്ളിച്ച് വ്രണമായി അങ്ങനെ പിന്നെ കല്യാണം വേണ്ടന്ന് വെച്ച് അവിടെ നിന്ന് സിസ്റ്റർ ആയി ഭരണങ്ങാനം അടുത്തുന്നു പിന്നെ ഒത്തിരി ശാരീരിക ബുദ്ധമുട്ടുകൾ അനുഭവിച്ച് യാതനകൾ മുഴുവൻ അനുഭവിച്ച് ഒരു സഹനപുത്രിയായിട്ട് മരിച്ചതാണ് അൽഫോൻസാമ്മ അൽഫോൻസാമ്മ ഒരു കുഞ്ഞിൻ്റെ കാലിന് നടക്കാനുള്ള ശക്തി കൊടുത്തതാണ് വിശുദ്ധ ആയിട്ട് പ്രഖ്യാപിക്കുന്നത് അൽഫോൻസാമ്മ നമ്മളെന്തോ അതിനോട് കൂടി എന്തോരം എന്താ എന്താ പ്രാർഥിച്ച് എങ്ങനെ പോകുന്നോ അത് നമുക്ക് നല്ല ഒരു അനുഭവം കിട്ടുന്നുണ്ട് അൽഫോൻസാമ്മയുടെ അവിടെ പോയി കഴിഞ്ഞാൽ അത് അത് തീർഥാടനകേന്ദ്രമാണ് നോയമ്പ് നോറ്റ് അവിടെ വന്ന് അൽഫോൻസാമ്മയോട് കണ്ണുനീരോട് കൂടി പ്രാർഥിച്ചാൽ അതെല്ലാം കിട്ടുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടിയാണ് എല്ലാവരും പോകുന്നത് ചെറുപ്പുങ്ങൽ മാർശ്ലീലവാ ഉണ്ണീശോയുടെ നാമത്തിലുള്ള പള്ളിയാണ് അവിടെ എല്ലാ ആദ്യ വെള്ളി ആഴ്ച ദിവസവും എല്ലാ നാനാജാതി മതത്തിൽപ്പെട്ട എല്ലാവരും വന്നവിടെ ഒരേ വിശ്വാസത്തിൽ വന്ന് എണ്ണയൊഴിക്കുന്നതാണ് ഒരു പള്ളിയാണ് മാർസ്ലീബാ പള്ളി അതുപോലെ തന്നെ പാലാ കിഴതടിയൂർന്ന് പറയും വിശുദ്ധ യൂദാശ്ളീഹാ യൂദാ വിശുദ്ധ യൂദാശ്ളീഹായുടെ നാമദേയം അവിടെ അതുപോലെ തന്നെയാണ് അവിടെയുണ്ട് പതിമൂന്ന് ദിവസത്തെ നാ പെരുന്നാളും കാര്യങ്ങളും അവിടെ അതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ആലം പള്ളി അതും മാതാവിൻ്റെ പള്ളിയാണ് അവിടെ ഉദ്ദേശിക്കുന്ന ബൈബിളിനകത്തുള്ള ബൈബിൾ വാചകങ്ങളുടെ പോലെ തന്നെ ടാബ്ലോയായിട്ട് അവിടെ അവതരിപ്പിച്ച് സമ്മാനങ്ങളെല്ലാം കൊടുത്തത് ഭയങ്കര ഒരു കാഴ്ച സമ്മാനായിട്ട് ടാബ്ലോന്ന് പറയുന്നത് ഈശ്ശോടെ ജനനം മുതൽ മരണം വരെയൊള്ള എല്ലാ കാര്യങ്ങളും ആ ടാബ്ലോ ആയിട്ട് അവതരിപ്പിക്കും അതുപോലെ തന്നെയാണ് അതിരമ്പുഴ പള്ളി വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് അതിര അമ്പ് പെരുന്നാള്ന്നാണ് അതിന് പറയുന്നത് ആ അമ്പ് പെരുന്നാളിന് ഓരോ കരേൽ ഓരോ സ്ഥലത്തേക്കും നമ്മൾ പ്രദക്ഷണമായിട്ടാണ് നമ്മൾ കഴന്ന് കൊണ്ട് വെക്കുന്നത് നമ്മൾ കഴന്നെന്ന് പറയാ കഴന്ന് കൊണ്ട് വെക്കുന്നു അതുകഴിഞ്ഞ് വൈകുന്നേരം വന്ന് പ്രാർഥിക്കുന്നു കഴന്ന് പള്ളീലേക്ക് കൊണ്ട് പോകുന്നു പിന്നെയാണ് ഈ അടുത്ത ഇരുപത്തി നാലാം തീയതിയാണ് ലോകപ്രശസ്തമായ വെടികെട്ടുകളായിരുന്നു ഇപ്പം ഒത്തിരി വെടികെട്ടുകൾ നടത്താൻ പാടില്ലെന്ന് പറഞ്ഞത് കൊണ്ട് അത് ചുരുങ്ങി ഇതാക്കിയെന്നുള്ളതേ ഉള്ളു അല്ലാതെ നാലു സെറ്റ് അഞ്ച് സെറ്റ് ആൾക്കാരുടെ നേരം വെളുക്കുവോളം നല്ലൊരു വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ അതിരമ്പുഴ പെരുനാളിൽ വെളിയിൽ കിടക്കുന്ന വെളിയിൽ വെളിയിൽ രാജ്യത്തുള്ള ആൾക്കാരെല്ലാം അതിരമ്പുഴ പെരുനാളിന് കൂടാൻ വേണ്ടീ മാത്രമായിട്ട് അവധിയെടുത്ത് വരുന്ന ആൾക്കാരായിരുന്നു ഇപ്പം അതങ്ങനെ പെരുന്നാളും കാര്യങ്ങളും ഉണ്ട് വെടിക്കെട്ടിന് അതാണ് അതിൻ്റെ ഏറ്റോം പ്രധാനകാര്യം വെടിക്കെട്ട് ഇപ്പം നിർത്തലാക്കി നിർത്തലാക്കിയതല്ല കുറെച്ചെണ്ണം ഒന്ന് രണ്ട് എണ്ണം സെറ്റിൻ്റെ വലിയ കട് ഒത്തിരി സമയമില്ലാതെ ഉള്ള ഒരു വെടിക്കെട്ട് നടത്തുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ നാഗമ്പടത്ത് വിശുദ്ധ അന്തോണീസ് വിശുദ്ധ അന്തോണീസ് പുണ്യാളച്ചൻ്റെ പള്ളിയുണ്ട് അവിടെ ഇതുപോലെ തന്നെ എല്ലാ എല്ലാ സ്ഥലത്തെന്നുമുള്ള ആൾക്കാർ വളരെ ഭക്തിയോടുകൂടി വന്ന് പ്രാർഥിക്കുന്നതാണ് പ്രാർഥിച്ചാലൊരിക്കലും നിങ്ങൾക്ക് പ്രാർഥിക്കുന്നതൊന്നും കിട്ടത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആ പള്ളി അതുപോലെ തന്നെയാണ് ഏറ്റുമാനൂരമ്പലം ഏറ്റുമാനൂരമ്പലത്തിലെ പത്ത് ദിവസത്തെ ഉത്സവം ഏറ്റുമാനൂരമ്പലത്തിൽ പത്ത് ദിവസത്തെ ഉത്സവം ഉണ്ട് അവിടെ ഏറ്റോം ഏറ്റോം വിശേഷപ്പെട്ട രാജാവ് കൊടുത്തതാണ് ഏഴര പൊന്നാന ഏഴ് സ്വർണ്ണ ആനകളും ഒരു കുഞ്ഞാന സ്വർണ്ണം അത് പ്ര പ്രത്യേകം അവിടുത്തെ പെരുനാ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഒരു ആറ് ഏഴാം ദിവസമാണ് അത് എടുത്ത് പുറത്ത് വെക്കുന്നത് അമ്പലത്തിൽ അവിടെ വെക്കും എല്ലാ ആൾക്കാർക്കും കാണാൻ പറ്റും എട്ടാം ഒമ്പതാം ദിവസം അത് പുറത്തേക്ക് എടുക്കുവൊള്ളൂ പിന്നെ പത്താം ദിവസം ആറാട്ടിനാന്ന് ആറാട്ട് കഴിഞ്ഞ് വരുമ്പോഴ്ത്തേന് ഏഴരപ്പൊന്നാനേം കൊണ്ട് വന്ന് ഏറ്റുമാനൂരമ്പലത്തിൽ വാതിൽക്കെ വഴി നിന്ന് അത് അമ്പലത്തിലേക്ക് കൊണ്ട് പോകുന്നത് ഈ ഏറ്റുമാനൂരമ്പലത്തിലെ മുത്തു കുടകൾ മുഴുവനും നമ്മൾ ആ മുത്തു കുട കുറവിലങ്ങാട് പള്ളിയിലെ മുത്തു കുടകളും മുഴുവനും എല്ലാ വർഷത്തിലും നമ്മൾ ഏറ്റുമാനൂരമ്പലത്തിലെ ഉത്സവത്തിനായിട്ട് കൊണ്ട് വരും ഏറ്റുമാനൂരമ്പലത്തിലെ ആനേനെ മാതാ അവിടെ മാതാവിൻ്റെ രൂപം ഇറങ്ങേണ്ട സമായാകുബോഴ്ത്തേനും മാതാവിൻ്റെ രൂപം എഴുന്നള്ളിക്കാൻ വേണ്ടീട്ട് ആനയെ വിടുകാന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഒരു വർഷം അങ്ങനെ വിടാതിരുന്നു ആ വർഷം അവർ ആനയെ അവരെന്തോ ഒരു മത്സരം വെച്ചതാണ് ആ ഏറ്റുമാന്നൂരമ്പലംകാർ ഒരു വലിയ ആഞ്ഞിലിയിൽ ആനയെ കെട്ടിയിട്ടിരിക്കുവായിരുന്നു പ്രദിക്ഷണം ഇറങ്ങേണ്ട സമയം പന്ത്രണ്ട് മണീന്നൊരു സമയം ഉണ്ടെങ്കിൽ അവിടെ പ്രദിക്ഷണം ഇറങ്ങിയിരിക്കും പന്ത്രണ്ട് മണിക്ക് പ്രദദക്ഷിണം ഇറങ്ങേണ്ട സമയം ആയപ്പോഴ്ത്തേന് അന്നത്തെക്കാലത്ത് കെട്ടിയിരുന്ന ആഞ്ഞിലി ചോടെ പറിച്ച് ആനയെ അങ്ങ് മാതാവിൻ്റെ പ്രദിക്ഷിണം ഇറക്കുന്ന തയ്യാറായി അതുപിന്നെ അവർ തമ്മിലുള്ള മത്സരോം തീർന്ന് എല്ലാ പ്രാവശ്യം ഇവിടുന്ന് ആനെ വിടുന്നു അവിടുന്ന് മുത്തുകുടകളെല്ലാം ഇങ്ങോട്ട് തരുന്നു പിന്നീട് തിരുനക്കര അമ്പലത്തിൽ ഇപ്പം നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പൂരം തൃശ്ശൂർ പൂരം എങ്ങനെ നടക്കുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ തിരുനക്കരേം തിരുനക്കര അമ്പലത്തിലെ പൂരോം നടക്കുന്നത് കുട മാറ്റോം അത് ഭയങ്കര ഭയങ്കര ഒരു സംഭവമാണ് എന്തോരം കുടകളാണ് രണ്ട് അമ്പലത്തിൻറേം കുടമാറ്റം നടത്തുന്നത് വെടിക്കെട്ടും കാര്യങ്ങളും ഇല്ലാതെ പൂരോം നടത്തുന്നുണ്ട് പിന്നെ മണർകാട് മാതാവിൻ്റെ അമ്പലം അല്ല മാതാവിൻ്റെ പള്ളി മാതാവിൻ്റെ പള്ളിയുടെ തൊട്ടപ്പുറത്ത് ദേവിയുടെ അമ്പലം ഉണ്ട് ഈ മാതാവിൻ്റെ പള്ളി വരുന്നവർ തൊട്ടപ്പുറത്ത് അമ്പലത്തിലും കയറി വന്നേച്ചും മാതാവിനെ വരുന്ന ഹിന്ദുക്കളാണെ പോലും എട്ട് ദിവസത്തെ ഭയങ്കര ശുദ്ധവൃത്തിയിൽ നോയമ്പേടുത്ത് ഇറച്ചിയോ മീനോ മറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കാതെ ഏറ്റവും നല്ല ശുദ്ധവൃത്തിയോടുകൂടി എട്ട് ദിവസത്തെ മാത്രമേ നോയമ്പെടുത്ത് മാത്രമേ ആ പള്ളിയുടെ ആ മതിൽ കെട്ടിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ അല്ലാത്തവർക്ക് ആ നോയമ്പിൻ്റെത് കഴിഞ്ഞതിന് ശേഷം പോകാൻ ഉള്ളത് അല്ലാതെ ആ എട്ട് ദിവസം നോയമ്പ് എടുത്തിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് വിശ്വാസമില്ലാത്തവരാരും തന്നെ കയറാറില്ല അത് ഒരു പണ്ട് മുതലേ ഉള്ളൊരു വിശ്വാസമാണ് അവിടെ